ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലാണ് സോനാലിയുടെ ഡാൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ടീമിൻ്റെ പേരാണ് ടീം നാച്ച് പിന്നെ ലക്ഷ്മി സഞ്ജു അവരുടെ റീലുകളും ഞാൻ കാണാറുണ്ട് ആ ഡാൻസും എല്ലാം എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ പിന്നെ കൂടുതല് കാണുന്നത് തമാശയായിട്ടുള്ള കോമഡി ആയിട്ടുള്ള റീലുകളാണ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും ഇഷ്ടമാണ് അവരുടെ ഡാൻസും അവരുടെ ഭാവങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ തമാശയും കോമഡിയായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഭയങ്കര കാര്യമാണ് ലക്ഷ്മിപ്രിയയുടെ ലക്ഷ്മി സഞ്ജൂവിൻ്റെ ഡാൻസും എനിക്കിഷ്ടമാണ്